ഞങ്ങൾ ഹലോ ഗ്യാസ് സിലിണ്ടർ ഗ്യാസേജൻസി അല്ലേ ഞങ്ങള് കഴിഞ്ഞ ദിവസം അവിടെ ഒട ബുക്കെയുകേം ഉടനെ തന്നെ ഉടനെ തന്നെ ഗ്യാസ് നമുക്ക് വീട്ടിലെത്തിക്കുകയും ചെയ്ത ഗ്യാസേജൻസിക്ക് എൻ്റെ അതിയായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് സോ നിങ്ങളുടെ ഉചിതമായ പ്രവൃത്തിയും സ്പീഡോടു കൂടി നിങ്ങൾ ചെയ്യുന്നതില് വളരെ അധികം നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്